ഞാൻ പോയത് എന്നൂർ എന്ന സ്ഥലത്താണ് അവിടെ ഒരുപാട് ഭംഗിയുള്ള ഗ്രാമീണ മേഖലയാണ് അവിടെ ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു വയനാട്ടിലെ ഒരു നെയ്ത്ത് ഗ്രാമമാണ് എന്നൂര്

പല സമയങ്ങളിലും നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും ലഭിക്കുന്ന സ്ഥലമാണ് ചില സീസണുകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നല്ല തണുപ്പുകൾ നടക്കാറുണ്ട് അവിടെ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതലായി എത്താറുമുണ്ട് അവിടെ പലപ്പോഴും സ്റ്റേജ് പരിപാടികൾ നടക്കാറുണ്ട് അവിടെ ഞാനും ഒരു പ്രാവശ്യം സ്റ്റേജ് പരിപാടികൾ എടുത്തിട്ടുണ്ട് അവിടുന്ന് മറക്കാനാവാത്ത ചിത്രങ്ങൾ ഞങ്ങളെല്ലാരും സൂക്ഷിച്ച് വെച്ചിരുന്നു ഫോട്ടോഗ്രാഫി ഞാൻ തന്നെയായിരുന്നു അത് വളരെ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ തന്നെയായിരുന്നു കാരണം അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തരാൻ അവിടുത്തെ പ്രകൃതിക്ക് സാധിക്കാറുണ്ട്